ഇപ്പം കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അതായത് നമുക്ക് കാ ഓരോ കാര്യങ്ങളും അതായത് ഇപ്പോൾ സ്കൂൾക്കോ സ്കൂളുകളിലേക്ക് ആണേൽ സ്കോളർഷിപ്പ് കോളേജുകളിലേക്ക് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ കുറെ ക്യാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് തരുന്നെയാണ് അതായത് നമുക്ക് കേരള ഗവൺമെൻറ് അതായത് നമ്മുടെ പ്ര മുഖ്യമന്ത്രി കാര്യങ്ങൾ ഒക്കെ ആണ് നമുക്ക് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഒക്കെ തരുന്നത് അപ്പം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് അവര് സർക്കാർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തില് മുഖ്യമന്ത്രി പാസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാശ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെന്റിലേക്ക് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ അപ്പോന്ന് വെച്ചാൽ അത് ഇപ്പോൾ കോളേജിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അല്ല അപ്പോൾ ആരോഗ്യ മേഖലയിൽ ആണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് വേണമെങ്കിൽ പറയാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകള് കാര്യങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയും അതുപോലെത്തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ അതായത് എല്ലാം ഗവൺമെന്റിൻ്റെ ഇതെന്നെ ആണല്ലോ അപ്പോൾ അവര് പാസാക്കി തരുവാണെങ്കിൽ മാത്രമേ നമുക്കത് ഇവിടെ പിന്നെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഫ്രീയായിട്ട് കാര്യങ്ങൾ മരുന്നു കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു